റെയിൽവേ സ്റ്റേഷൻ്റവിടുന്ന് സ്ട്രേയ്റ്റ് വരുമ്പോള് സ്ട്രെയ്റ്റ് വരുമ്പോള് രണ്ട് കടകള് കാണാം അവിടുന്ന് റൈറ്റ് താഴേക്ക് ഒരു താഴേക്കൊരു വഴിയുണ്ട് ആ താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോള് അതൊരിറക്കമാണ് ആ ഇറക്കം കഴിഞ്ഞ് ഇത്തിരി കയറി വരുമ്പോള് ഒരു ചർച്ച് കാണാം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് അവിടുന്ന് നേരെ താഴേക്ക് വരിക അവിടുന്ന് താഴേക്ക് വരുമ്പോള് ഒരിറക്കമാണ് ആ ഇറക്കമിറങ്ങി നേരെ മേളിലേക്ക് റൈറ്റെടുക്കുക റൈറ്റെടുത്ത് റൈറ്റെടുത്തിട്ടവിടുന്നൊരു ലെഫ്റ്റുണ്ട് ആ ലെഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോള് ഒരു കട കാണാം അവിടുന്ന് ഒരിത്തിരി ഒരു പോസ്റ്റിൻ്റവിടം വരെ ഒരു റൈറ്റെടുക്കുക ദെൻ താഴേക്ക് ഒരു കുഞ്ഞ് വഴിയുണ്ട് അവടെനിന്ന് താഴേക്ക് വരുക അപ്പോള് രണ്ട് വീടുകള് കാണാം അതില് രണ്ടാമത്തെ വീടാണ് ഗ്രീൻ പെയ്ൻറ്റടിച്ച വീടാണ് വീട്